ഞാൻ ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ച് വളർന്ന ആളാണ് അപ്പം എൻ്റെ കല്യാണവും ആ രീതിയിൽ തന്നെയായിരുന്നു ഹിന്ദു സംസ്കാരത്തിലുള്ള കല്യാണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ ഇപ്പം ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന കാരണവന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ച് കല്യാണം ഉറപ്പിക്കും കല്യാണം നിശ്ചയിക്കും ഇന്ന തിയ്യതിയിലേക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് എന്ന് പറഞ്ഞ് കല്യാണം നിശ്ചയിക്കും പിന്നെ രണ്ട് വരൻ്റെ കൂട്ടരും വധുവിൻ്റെ കൂട്ടരും അവർക്ക് ക്ഷണിക്കാൻ ഉള്ളവരെയെല്ലാം ക്ഷണിച്ച് ക്ഷണിക്കാനുള്ളവരെയെല്ലാം ക്ഷണിക്കുകയെന്നുളെളാരുകാര്യമാണ് പിന്നെ അതുകഴിഞ്ഞ് കല്യാണത്തിൻ്റെ ദിവസമായാൽ ഒന്നുകിൽ അമ്പലങ്ങളിൽ വെച്ചോ അല്ലെങ്കിൽ ഓഡിറ്റോറിയം അങ്ങനെയുള്ളിടത്ത് വെച്ചായിരിക്കും കല്യാണം നടത്തുക സൗകര്യങ്ങൾ എല്ലാവർക്കുമുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും കല്യാണം നടത്തുക പിന്നെ അന്നത്തെ ദിവസത്തെ ചടങ്ങുകളെന്നു പറഞ്ഞാൽ വരൻ്റെ കൂട്ടർ കല്യാണ സ്ഥലത്ത് എത്തും എത്തിക്കഴിഞ്ഞാല് വധുവിൻ്റെ ആൾക്കാരെല്ലാം ചേർന്ന് വധുവിന്റെ വരൻ്റെ വീട്ടുകാരെ സ്വീകരിച്ച് ആനയിക്കുന്ന ചടങ്ങാണ് അങ്ങനെ വരനേയും കൂട്ടരേയും സ്വീകരിച്ച് ആനയിച്ച് വരനെ മണ്ഡപത്തിൽ ആനയിച്ചിരുത്തും അതിനുശേഷം വധുവിനെ ആനയിച്ച് മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഇരുത്തും പിന്നീട് മുതിർന്ന ആളുകൾക്ക് അതായത് വരനും വധുവും അച്ഛനമ്മമാർക്ക് ദക്ഷിണ കൊടുക്കാമെന്നൊരു ചടങ്ങുണ്ട് മണ്ഡപത്തിൽ വെച്ച് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ താലി കെട്ടാണ് താലി ഹിന്ദുസംസ്കാരത്തിൽ താലിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ആലിലയുടെ ഷേപ്പിലുള്ള താലിയാണ് ഹിന്ദു സംസ്കാരത്തിൽ ഉള്ളത് അങ്ങനെ താലികെട്ട് കഴിഞ്ഞ് പിന്നിട് അങ്ങ് വരനും വധുവും പരസ്പരം മാല പൂമാല അണിയിക്കും പിന്നീട് നെറുകയിൽ സിന്ദൂരം തൊടുക എന്നൊരു ചടങ്ങുണ്ട് പിന്നെ അന്ന് ഇപ്പോഴത്തെ ഹിന്ദു വിവാഹങ്ങളിൽ ഓരോ ഇടയ്ക്ക് സാരി മാറുന്ന പതിവൊക്കെയുണ്ട് അതായത് ആദി വീട്ടിൽ പെണ്ണ് വധുവിൻ്റെ വീട്ടിൽ നിന്നൊരു സാരി ഉടുത്തിട്ടിറങ്ങും അതുകഴിഞ്ഞ് പിന്നെ താലി കെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ആ സാരി മാറിയൊരു സെറ്റിൻ്റെ സാരി ആണ് പിന്നെ ഉടുക്കുന്നത് ആ അത് കഴിഞ്ഞ് പിന്നെ സദ്യയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വരൻ വരൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പിന്നെ വരൻ കൊടുക്കുന്ന സാരിയാണ് പിന്നെ വധു ഉടുക്കുന്നത് അങ്ങനെ മൂന്ന് സാരി ആ കല്യാണദിവസം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ആഭരണങ്ങൾ ചിലർക്കൊക്കെ ട് ട്രഡീഷ്ണൽ ആയിട്ടുള്ള അതായത് പരമ്പരാഗതമായ ആഭരണങ്ങളോടാണ് ചിലർക്കൊക്കെ ഇഷ്ടം അതായത് പാലക്ക്യാ മാല ലക്ഷ്മിമാല അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഒരോരുത്തരുടേയും സാമ്പത്തികം അനുസരിച്ച് എല്ലാവരും ഉപയോഗിക്കുന്നു പിന്നീട് എല്ലാവരും ക്ഷണിച്ച് വരുത്തിയ ആളുകളെല്ലാം സദ്യയൊക്കെ കഴിച്ച് സന്തോഷം സന്തോഷത്തോടെ മടങ്ങുന്നു പിന്നീട് വരൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന അതിന് സമയം ഉണ്ടാവും വരൻ്റെ വീട്ടിൽ ചെന്ന് കയറുന്നത് ഇന്ന ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സമയത്ത് ചെന്ന് കയറണമെന്നുണ്ടാവും അതിനനുസരിച്ച് ആയിരിക്കും കല്യാണസ്ഥലത്ത് നിന്നും പുറപ്പെടുന്നത് അങ്ങനെ നമ്മൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അങ്ങനെയൊരു പുതിയ വീട്ടിൽ ചെന്ന് കയറുകയാണ് ഇതൊക്കെയാണ് ഹിന്ദുസംസ്കാരത്തിൽ നമുക്കിപ്പോൾ വിവാഹത്തെക്കുറിച്ചൊക്കെ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്